അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്